ഇന്ത്യയിൽ കലാകാരന്മാർക്കും അതേ പ്രാധാന്യവും അവസരങ്ങളും നൽകുന്നില്ലെന്നു ഞാൻ കരുതുന്നുണ്ട് അതായത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മതിയായ പരിഗണന ഈ കാലത്തു കിട്ടുന്നില്ല ഇന്ത്യയിൽ അതായത് അവർക്ക് അവരുടെതാ അവരുടെ കല നമുക്ക് പുറത്തു കാണിക്കണമെങ്കിൽ അവർക്ക് അതിനായുള്ള ഉപകരണങ്ങളും സാധനങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടു തന്നെ അവർക്ക് മതിയായ പരിഗണന നൽകുന്നുമില്ല ആരും പിന്നെ അവരുടെ കഴിവ് തെളിയിക്കണമെങ്കിൽ നം അവർക്ക് ആ ഒരു പിന്തുണ വേണം ആ പിന്തുണയൊന്നും ഇവിടെ ആരും നൽകുന്നില്ല അവർക്ക് അതുപോലെ തന്നെ അവർക്ക് അവസരങ്ങൾ കൊടുക്കണം നൽകണം എന്നൊക്കെ തോന്നും ഉണ്ട് എന്നാൽ ഇവരാരും നല്കുന്നില്ല എല്ലാവരും അവരവരുടെ ഇത് നോക്കി പോവുകയാണ് മറ്റുള്ളവർ കഴിവ് കാണാനോ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ ആരും തയ്യാറാകുന്നില്ല ഇന്നത്തെ കാലത്ത് അപ്പോ അവരുടെ കഴിവിനെ നമ്മൾ അംഗീകരിച്ചാലേ അവരെ കഴിവ് അവർക്ക് പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ നമ്മൾ ആ അംഗീകാര നമ്മൾ അത് അംഗീകരിക്കാണ്ടിരിക്കുന്ന അത്രയും കാലം അവരുടെ ഉള്ളിലെ കലാകാര കലാകാരന്മാര് ഉണരുന്നില്ല അപ്പോൾ അതിന്റേതായ പ്രശ്നങ്ങളും അവർക്ക് ഉണ്ട്